കല അല്ലെങ്കിൽ കരകൗശല ഉൽപാദനം നമുക്ക് പരിസ്ഥിതിക്ക് ഗുണകരമായിട്ട് ഉപയോഗിച്ചാൽ പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് ഉപയോഗിക്കുക എന്നത് പ എന്നത് ഒരു പ്രധാനമായ ഘടകമാണ് അപ്പം നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിനടുത്ത് അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഈ കല കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല പക്ഷേ ഞാൻ കെട്ടിടത്തോളം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അ അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് അഥവാ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ പാ പ്ലാസ്റ്റിക്കിനെയൊക്കെ റീയൂസ് റീ റെഡ്യൂസ് റീസൈക്കിൾ എന്നൊക്കെ പറയുന്നത് പോലെ പ്ലാസ്റ്റിക്കുകളെ തന്നെ വീണ്ടും എടുത്ത് അതിന് മനോഹരമായ രീതീലൊക്കെ ഒന്ന് ആർട്ട് ഇത് കാ കലാപാരമായിട്ടുള്ള രീതീലൊക്കെ ഒന്ന് അതിനെ മിനുസപ്പെടുത്തി എടുത്ത് അത് നല്ല രീതിയിൽ ഉണ്ടാക്കി അലങ്കാര വസ്തുക്കളായിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം അത് നമ്മുടെ ഒരു പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മാലിന്യം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും അതുപോലെ തന്നെ പ ഈ ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും അത് പല രീതിയിൽ വീണ്ടും ഒന്നിൽ നിന്ന് ചെയ്യാനുമൊക്കെ നമുക്ക് സാധിക്കാം അങ്ങനെ ഒരു ഒരു കാര്യം കൊണ്ടു നമ്മുടെ ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതും നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടികളെയൊക്കെയും കുട്ടികളെ അല്ലാത്ത ആൾക്കാരെയും ഒക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് അതുമൂലം ഒന്നും നമുക്ക് മാലിന്യങ്ങൾ കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ അത് പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം പ്ലാസ്റ്റിക്കിലുള്ള ബാഗുകളൊക്കെ ഉപ ഉപയോഗിച്ചിട്ട് ഈ തുണി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക തുണി ബാഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുകയൊക്കെ ചെയ്യുന്നതും ഈ ഈ കര ക കല കരകൗശല ഉൽപാദനത്തിൻ്റെ ഇതിൽ വരും അതുപോലെ തന്നെ തുണി മാത്രം അല്ല തു തുണി കൊണ്ട് ബാഗുകൾ മാത്രം അല്ല അങ്ങനെ പലത് ഇത് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ എത്രത്തോളം പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഇപ്പം നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് ഏറ്റവും കൂടുതൽ വരുന്ന മാലിന്യം എന്ന് പറയുന്ന അതിൻ്റെ ഉപയോഗം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും നല്ലൊരു പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം മാറ്റി നിർത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാൽ പ്ലാസ്റ്റിക്കിലാണ് കവർ ഇട്ട് കൊടുക്കുന്നത് കവർ അല്ല നമ്മൾ സാധനങ്ങളിട്ട് കൊടുക്കുന്നത് അപ്പം അതിന് പകരം ഈ പേപ്പറിലൊക്കെ കൊടുക്കുന്നതോ പേപ്പറിൽ സാധനങ്ങൾ പൊതിഞ്ഞ് കൊടുക്കുന്നു അങ്ങനെയുള്ള പഴയ രീതികളൊക്കെ കൊണ്ട് വരണമെന്നാണ് എൻ്റെ അ അഭിപ്രായം അതുപോലെ തന്നെ പഴയ ഒരു ചണചാക്കിലുള്ള കയറിട്ടാണ് നമ്മൾ ഈ ആ പേപ്പറിൽ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്നത് ഇപ്പോൾ റബർ ബാൻഡ് പോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം അതൊക്കെ മാറ്റി പഴയ രീതിയിൽ തിരിച്ച് വരണം അങ്ങനെ ഈ കരകൗശലം എന്ന് ഉദ് ഉദ് ഉദ്ദേശിക്കുന്നൊരു സംഭവം കൊണ്ട് ഈ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് വന്ന് അത് പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് കാരണം ആകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം